ആ ഞാൻ തയ്യൽ അഭ്യസിച്ച പരിശീലിച്ചിട്ടുള്ളൊരാളാണ് ഞാൻ ചെയ്യുന്നുണ്ട് സാധാരണ ഇപ്പോൾ എനിക്ക് സാ ടോപ്പ് ഫ്രോക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഞാൻ ചെയ്തു വരുന്നത് ഇനി എനിക്ക് വളരെ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ജോബ് പ്രഫഷനായിട്ട് തന്നെ തെരഞ്ഞെടുത്ത് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമാണ് സാരീ ബ്ലൗസ് അത് നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അത് ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ടോപ്പ് ഒക്കെ പല രീതിയിലുള്ള ടോപ്പുകൾ അതേപോലെ പല സ്റ്റൈലിലുള്ള ഫ്രോക്കുകളൊക്കെ ഞാൻ തെയ്ക്കാറുണ്ട് ഇപ്പോൾ സാരീ ബ്ലൗസന്നെ പല രീതിയിലുണ്ട് അത് എവിടെയെങ്കിലും പോയി ഒന്ന് അഭ്യസം ഒന്ന് നല്ലതുപോലെ പരിശീലനം നേടിയിട്ട് അത് തെയ്ച്ച് എനിക്ക് നല്ല രീതിയിൽ ചെയ്തുകൊടുക്കാൻ ആഗ്രഹവുമുണ്ട് അപ്പോൾ സാരീ ബ്ലൗസന്നെ ഇപ്പോൾ പല രീതിയിലുണ്ട് അത് ഇപ്പോൾ ചെറിയ കൈ സ്ലി ചെറിയ കയ്യുള്ളത് കയ്യില്ലാത്തത് അതേപോലെ തന്നെ അല്ലാത്ത രീതിയിലിപ്പം ഷോട്ട് അല്ലെങ്കിൽ ലോങ്ങ് ബ്ലൗസ് അങ്ങനത്തെ പല രീതിയിലുള്ള ബ്ലൗസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ അഭ്യസിച്ചിട്ട് അത് ഒരു നല്ല രീതിയിൽ ചെയ്തു പോവാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്